ചേട്ടാ ഞാൻ വിളിച്ചത് ലൊക്കേഷനിലെ കാര്യം ഒന്നുകൂടി കൺഫേം ചെയ്തു പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിൽക്കണ ലൊക്കേഷനിൽ അല്ല ഫുഡ്ഡോ എത്തിച്ച് തരേണ്ടത് അവിടുന്നു നേരെ റൈറ്റ് വന്നിട്ട് ഉമ നഗർ പറയുന്ന ഒരു വില്ലയുണ്ട് ആ വില്ല ആ സ്ട്രീറ്റിലോട്ട് കയറണം അവിടെ കയറിട്ട് നിങ്ങൾ അവിടെ നിന്നൊരു ലെഫ്റ്റ് എടുക്കണം അവിടെ നിന്നൊരു അഞ്ചു വീട് കഴിഞ്ഞ് പിന്നേയും റൈറ്റ് എടുത്തു വരണം ഒരു മൂന്ന് വീട് ഉണ്ട് ആ മൂന്ന് വീടിൻ്റെ ബേക്ക് സൈഡ് സൈഡിലേക്കൊരു ഇടവഴി പോലെയുണ്ട് അവിടെ വന്നിട്ട് ഈ ഫ്ലാറ്റ് ആണ് ഫ്ലാറ്റ് ആണത് അവിടെ വന്നിട്ട് ഉള്ളിൽ കയറിയാൽ മതി ഉള്ളിൽ കയറി നാലാമത്തെ നിലയിൽ നാലാമത്തെ നില കയറിവന്ന് റൈറ്റിലേക്ക് കയറി മൂന്നാമത്തെ റൂമാണ് റൂം നമ്പർ ഇരുപത്തേഴ് ഇതാണ് റൂം നമ്പർ ഓക്കെ അവിടെയാണ് എനിക്ക് ഈ ഫുഡ്ഡ് എത്തിച്ച് തരേണ്ടത് ഓക്കെ